മലബാർ റെസ്റ്റോറൻ്റല്ലേ ഞാൻ അശ്വതിയാണ് ഞാൻ അവിടുന്ന് സ്ഥിരം ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാ എനിക്ക് നിങ്ങളുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനാണെങ്കിൽ അതുകൊണ്ട് വേറൊരു റെസ്റ്റോറൻറ്റ് റെഫർ ചെയ്യാറില്ല ഇനി എനിക്ക് എപ്പോൾ ഫുഡിൻ്റെ അത്യാവശ്യം വന്നാലും ഞാൻ ഇവിടുന്ന് തന്നെയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങടെ ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയുകയും ചെയ്യാം എൻ്റെ അഡ്രസ്സാണെങ്കിലും കറക്റ്റായിട്ടവർക്ക് അറിയുകയും ചെയ്യാം ഇപ്പോൾ ഞാനാണെങ്കിൽ വേറൊരു സ്ഥലത്താണ് അവിടിപ്പം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് അവർക്ക് വേണ്ടിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് നിക്കുവാണ് അപ്പം എൻ്റെ അഡ്രസ്സ് കുറച്ച് ചേയ്ഞ്ചായിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ അഡ്രസ്സിലേയ്ക്ക് നിങ്ങളെനിക്ക് ഫുഡ് അയച്ചു തരേണ്ടതാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വിളിച്ചത് എനിക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ അത്ര വിക് വിശ്വാസവും നിങ്ങളുടെ ഫുഡ് അത്രയ്ക്ക് നല്ലത് ആയത് കൊണ്ടാണ് ഞാൻ വേറെ ഇവിടെ അടുത്ത് പല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളാണെങ്കിൽ അപ്പം ഞാൻ അയക്കുന്ന മേൽവിലാസം നിങ്ങൾ അതിലേയ്ക്ക് നിങ്ങൾ ഫുഡ് അയക്കേണ്ടതാണ് ഞാൻ മേൽവിലാസം പറയാം പാലയ്ക്കൽ ബിൽഡിങ് സങ്ക്രാന്തി പി ഒ കോട്ടയം ഈ അഡ്രസ്സിലേയ്ക്ക് നിങ്ങൾ മറക്കാതെ അയയ്ക്കണം നിങ്ങൾ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ ഫുഡ് അത്രയ്ക്ക് നല്ല ഫുഡായതു കൊണ്ടാണ് ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്യാത്തത് നിങ്ങളപ്പം മറക്കാതെ അയയ്ക്കണം എനിക്ക്